ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് പല വെല്ലുവിളികളും നേരിടുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഏറെ പ്രശ്നങ്ങൾ ഉള്ളതാണ് ഓരോ അദ്ധ്യയന വർഷവും ധാരാളം സമരങ്ങളും ചർച്ചകളും ഉണ്ടാകാറുണ്ട് സൂക്ഷ്മദർശനത്തിൽത്തന്നെ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ വിവാദങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിൻറ്റെ ഘടനയനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇന്നത്തെ വിദ്യാഭ്യാസമെന്നു പറയുന്നത് ഫീസെത്ര പ്രവേശമെങ്ങനെ എന്നതാണ് എന്താണ് വിദ്യാഭ്യാസം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വിരളമാണ് വിദ്യാഭ്യാസത്തിൻറ്റെ പേരും പറഞ്ഞ് ഇന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ആർ ചർച്ചയിലൊന്നും ഉൾപ്പെടുന്നില്ല അറിവിൻറ്റെ ഉൽപ്പാദനവും വിതരണവുമാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് നേടിയ അറിവ് എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് മറ്റൊരു നിർവ്വചനം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകണം വിദ്യാഭ്യാസമുള്ളവരെ പണ്ട് സമൂഹം എന്നും ബഹുമാനിച്ചിരുന്നു അവർക്ക് പ്രത്യേക ആദരവും നൽകിയിരുന്നു സമൂഹത്തിൻറ്റെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും വിദ്യാഭ്യാസം ആവശ്യമാണ് വിദ്യാഭ്യാസം ഉള്ള സമൂഹം എന്നും ആദരിക്കപ്പെടും പുതിയ തലമുറയെ വാർക്കാൻ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വളരെ വല്താണ് പുതിയ തലമുറയുടെ ഉന്നമന ഉന്നമന ഉന്നമനത്തിനായി ഇന്ന് പല വിദ്യാഭ്യാസ ക്ലാസ്സുകളും സ്കൂളുകളിൽ സംഘടിപ്പിക്കാറുണ്ട് അറിവ് എന്നതിനേക്കാൾ വിവരം എന്നതിനാണ് ഇന്ന് പ്രാധാന്യം അതു കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല ഇന്ന് സ്കൂളുകളിൽ കുട്ടികളുടെ ഭാവിക്ക് പ്രയോജ പ്രയോജനകരമാകും വിധം അവർക്കു നല്ല നല്ല സെമിനാറുകളും ക്ലാസ്സുകളുമൊക്കെ നൽകാറുണ്ട് സമൂഹത്തിൻറ്റെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും വിദ്യാഭ്യാസമെന്നും ആവശ്യമാണ് ഇന്നത്തെക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുകയെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇന്നത്തെക്കാലത്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതു രാജ്യങ്ങളിൽച്ചെന്നാലും ജോലി സാദ്ധ്യത കാണുകയുള്ളൂ